നിലവിലുള്ള ചെടികളിൽ നിന്ന് കൂടുതൽ ഉൽപാദനം ലഭിക്കാൻ നമ്മള് കൂടുതലയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് വെച്ചാൽ ആ ചെടിയുടെ പരിപാലനം തന്നെയാണ് ദിനം നമ്മള് ആ ചെടിയെ നിരീക്ഷിക്കണം അതിന് ആവിശ്യമായിട്ടുള്ള പോഷകങ്ങളും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന കീടങ്ങളുടെ അക്രമണമൊക്കെ ചെറുക്കുന്നതിന് വേണ്ടീട്ട് പുകയില കഷായം പോലുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ജൈവ പച്ചക്കറികളുടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ കംപോസ്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെയും കാലി വളങ്ങൾ പോലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും ചെടികളുടെ ആയുസും അതുപോലെ തന്നെ ചെടികളുടെ ഉല്പാദനവും നമ്മൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും